ഞങ്ങൾ ട്രിപ്പ് പോണിണ്ട് ഊട്ടിക്ക് ആണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു വണ്ടി ആവശ്യമുണ്ട് ഞങ്ങൾ ഫാമിലി ഫാമിലിപരമായ ട്രിപ്പ് ആണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഏഴ് ആൾക്കാറുണ്ട് സെവെൻ സീറ്റഡ് വണ്ടി ഞങ്ങൾക്ക് വേണം അതിന് എത്ര ചിലവ് വരും നല്ല വണ്ടി തന്നെ ആണോ പോവുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ചിലവ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെണ് വരുന്നത് ദിവസത്തിന് എത്ര പൈസയാണ് വരുന്നത് ദിവസത്തിനാണോ അതോ കിലോമീറ്ററിനാണോ എത്രൻ്റെ വാടക വരുന്നത് പത്ത് ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കൂന്നത് അപ്പം എത്ര ചിലവും കാര്യങ്ങളുമൊക്കെ എത്ര വരും പിന്നെ മൈലേജും കാര്യങ്ങളുമൊക്കെ എങ്ങനെ ഏറ്റവും മൈലജ് കുറവുള്ള വണ്ടിയെ ഞങ്ങൾക്ക് പറ്റു ഞങ്ങൾ സാമ്പത്തികമായി അത്ര അധികം മുന്നോട്ടൊന്നും അല്ല അപ്പോൾ അതിനൊക്കെ ഒത്തതായിട്ടുള്ള ഒരു വണ്ടി വേണം റെൻ്റും കാര്യങ്ങളും ഒക്കെ എത്രയാണെന്ന് പറയുക പിന്നെ ഇത് എടുക്കാനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക ഇതിൻ്റെ ചാവിയും കാര്യങ്ങളുമൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കും പിന്നെ ഇത് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയാണ് ഇത് എൽപ്പിക്കുക ഇതിനൊക്കെ ആൾ വരുമോ ഡ്രൈവിംഗ് ഡ്രൈവർ ഒപ്പമുണ്ടാവുമോ അതോ ഞങ്ങൾത്തെ ഞങ്ങളുടെ ഇവിടത്തെ ഒരാൾ തന്നെ അതു ഓടിക്കണോ എങ്ങനെ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഇനി ഇപ്പം അധവാ എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അതെങ്ങനെ നന്നാക്കാം ഞങ്ങൾ നന്നാക്കി തരണോ അതോ നിങ്ങൾ നന്നാക്കുമോ